എനിക്കിപ്പോള് നൃത്തത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഡാൻസെന്ന് പറയുമ്പൊരു കലയാണ്

ആസ്വദിക്കുമ്പോള് തന്നെ നമ്മുടെ മനസ്സിനൊരു സുഖമാണത് തരുന്നത് ഡാൻസ് ഡാൻസൊരുപാട് തരമുണ്ട് അതിപ്പോള് കഥകളി ഒരു ഡാൻസാണ് കുച്ചിപ്പുടി ഒരു ഡാൻസാണ് ഈവൻ ഇപ്പോള് നമുക്ക് സിനിമാറ്റിക്ക് ഡാൻസ് കൂടെ ഉണ്ട് ഇപ്പോള് ഇന്നത്തെ പുതിയ കാലഘട്ടത്തില് എല്ലാവരും മൈക്രോ ഫാമിലി അങ്ങനെ ഒരു കാലഘട്ടമാണത് മൈക്രോ ഫാമിലി ന്യൂക്ലിയർ ഫാമിലി എല്ലാവരും ഫ്ളാറ്റിലാണിപ്പോള് താമസിക്കുന്നത് അപ്പോള് എല്ലാവരും ഒത്തുകൂടാൻ വേണ്ടി ഈ ഡാൻസാണവരെ ഇപ്പോള് ഒരു ഡാൻസുണ്ടെങ്കിൽ എല്ലാവരും ഒത്തു കൂടിയിരിക്കും ഇപ്പോള് ഇന്നത്തെ കാലഘട്ടത്തില് ഞാൻ ഉദാഹരണം പറയാണെങ്കിൽ കേരളത്തില് തന്നെ പറയാം എല്ലാവരും ഇപ്പോള് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അപ്പറത്തുള്ളവരെ ആർക്കും അറിഞ്ഞുകൂടാ ഇപ്പുറത്താരാണ് താമസിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല അങ്ങനെ അങ്ങനെ ഈ ഫ്ലാറ്റിൻ്റെ ഒരു ആനുവേഴ്സറി വരുമ്പോള് ഇവരെല്ലാം ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി വെളിയിലിറങ്ങി വരുന്നു ഒരു ഇവര് തമ്മിലൊരു റിലേഷനുണ്ടാക്കി എടുക്കുന്നു ഇതെല്ലാമീ ഡാൻസ് കൊണ്ടാണ് നടക്കുന്നത് അതിപ്പോള് സിനിമാറ്റിക്ക് ഡാൻസായാലും കഥകളിയായാലും കുച്ചിപ്പുടി ആയാലും കേരള നടനമായാലും ഇത് കാണാൻ വേണ്ടിയാണ് ആൾക്കാര് വരുന്നത് അപ്പോള് ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ഡാൻസ് കൊണ്ടവര് ക്രീയേറ്റെയ്യുകാണ് ഇന്നത്തെ ഈ പുതിയ തലമുറയില് ഡാൻസ് അതൊരു കലയാണത് അത് ആസ്വദിക്കണമെന്ന് പറയുമ്പോള് തന്നെ മനസ്സിന് എന്തന്നില്ലാത്തൊരാനന്ദവും നമ്മളവരുടെ കൂടെ ഈ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോള് കൂടെ ഡാൻസ് കളിക്കാനും കൂടെ തുള്ളാനും ആ ഒരു ഡാൻസെന്ന് പറയുമ്പോള് നമുക്കത് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം നമുക്ക് തരുന്നു അത് അത് എല്ലാ ആൾക്കാരെ ഒത്ത് ചേർക്കുന്നൊരു ഡാൻസിലൂടെ നൃത്തത്തിലൂടെ പല അവേയ്ർനസ്സ് കാര്യങ്ങള് നമുക്ക് എല്ലാവരും എല്ലാവരിലും എത്തിക്കുന്നു അപ്പോള് കഥകളി നമ്മളിപ്പോള് എടുത്താലും അതില് കീചക വധമുണ്ട് കീചക വധം അതില് അവരവതരിപ്പിക്കുന്നുണ്ട് കീചകവധമെന്നു പറഞ്ഞാല് ഒരു മഹാഭാതത്തിലെ ഏറ്റവും വലിയൊരു ഒരു ഒരു പാർട്ടാണ് കീചക വധം അപ്പോള് ഇങ്ങനത്തെ സംഭവങ്ങള് നമുക്ക് നൃത്തത്തിലും നൃത്തത്തിലൂടെ അവതരിപ്പിക്കാം ഇന്നത്തെ പല ടൈപ്പ് നൃത്തങ്ങളുണ്ട് സിനിമാറ്റിക്ക് നൃത്തമെടുത്താൽ അതിലിപ്പോള് പിള്ളേരിവിടെ എന്തൊക്കെ കാണിച്ച് കൂട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഈ പരിപാടികള് കാണാൻ വേണ്ടി എത്രയെത്ര ആളുകള് വരുന്നു പരിചയില്ലാത്തവര് പോലും ഈ ഡാൻസ് പ്രോഗ്രാമിന് വന്നാണ് ഞാൻ പരിചയപ്പെട്ടത് അങ്ങനെ എനിക്കൊരു പുതിയൊരു ഫ്രണ്ടിനെ കിട്ടി ഡാൻസ് പ്രോഗ്രാമിന് കാണാൻ പോയ ശേഷം ഇങ്ങനെയക്കെയാണ് നൃത്തം ഒരു സമൂഹത്തെ അവബോധത്തിലേക്കെത്തിക്കുകയോ ചെയ്യുന്നത് ഇതൊക്കെയാണ് എൻറ്റഭിപ്രായം